അപ്പോൾ എനിക്ക് കൂടൂതൽ സന്ദർശിക്കാനൊക്കെ താൽപര്യമുള്ള സ്ഥലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പാരീസിലൊക്കെ പോണം എന്ന് വലിയ ആഗ്രഹമാണ് കാരണം പാരീസിൽ ഈഫിൾ ടവർ ഒക്കെ വലിയ എന്താണ് പറയുക നമുക്ക് കാണാനൊക്കെ ഒരു കൗതുകം ഉള്ള ഇതാണ് അപ്പോൾ എനിക്ക് ഐഫിൽ ടവർ ഒക്കെ ഒന്ന് കാണണം എന്നൊക്കെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ട് പിന്നെ പിന്നെ പറയുവാണെങ്കിൽ എനിക്ക് കാണാൻ കൂടുതലും താല്പര്യം ഉള്ള സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ ഓൾമോസ്റ്റ് എന്താണ് പറയുക വയനാട് തന്നെ എനിക്ക് ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഇപ്പൊഴും എന്താണ് പറയുക പോയി കണ്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴും എനിക്ക് പോകാനിഷ്ടമുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് എന്താണ് പറയുക ചെമ്പ്ര പീക്ക് ഒക്കെ എന്താണ് പറയുക ഞാൻ പോയിട്ടുള്ള സ്ഥലമാണ് അടിപൊളി വ്യൂ ആണ് അതിന്റെ മുകളിലൊക്കെ എന്താണ് പറയുക നല്ലൊരു സ്ഥലമാണ് പിന്നെ എന്താണ് പറയുക കുറുമ്പാലക്കോട്ട അതൊക്കെ എന്താണ് പറയുക അതുപോലെത്തന്നെ കാണാൻ അടിപൊളിയാണ് മനോഹരമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് അപ്പോൾ ഇവിടെയൊക്കെ എനിക്കിനി വീണ്ടും വീണ്ടും പോകാൻ താല്പര്യം തോന്നുന്ന സ്ഥലങ്ങൾ തന്നെയാണ് അപ്പോൾ എനിക്ക് കൂടുതലും ഇത്തരത്തിലുള്ള സ്ഥലത്തൊക്കെയാണ് പോകാൻ കൂടുതലും ഇപ്പൊഴും ഇഷ്ടം പിന്നെ പറയുവാണെങ്കിൽ എന്താണ് പറയുക ചൈന അങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകാൻ എനിക്ക് ഇപ്പൊഴും ഇഷ്ടമുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് എന്താണ് പറയുക എല്ലാ സ്ഥലങ്ങളും എനിക്ക് ഇഷ്ടമാണ് എന്നാലും ഇത്തരത്തിലുള്ള കുറച്ച് സ്ഥലങ്ങളിലൊക്കെയാണ് എനിക്ക് കൂടുതലും പോകാനായിട്ട് താല്പര്യം തോന്നാറുള്ളത്